ഒരു പട്ട് ഒര് ഞാനിപ്പെനിക്കൊരു ഫാക്ടറിയാണെങ്കിൽ അതിനകത്ത് ഞാന് ചുരിദാർ ബ്ലൗസ് എന്നതിലൊക്കെ ഞാന് എനിക്ക് ഞാൻ അതിനൊരു ഓണർ ആയിരുന്നെങ്കിൽ അതിന് ഞാൻ അതിന് ഞാൻ ഓണായിട്ട് തന്നെ ഒരു വില ഒരു വില കണ്ടെത്തി ഞാൻ ചെയ്യും ചുടുദാറിനാണെങ്കിൽ ഒരു വില ഉണ്ടല്ലോ ഒരു എത്രയാ ചെയ്യണ്ടത് അപ്പോൾ ഒരു വിലക്ക് എത്രയാ ഇപ്പം ഒരു ഒരു മെറ്റീരിയൽ നമ്മള് തുണിയിൽ മെറ്റീരിയൽ എത്രയാണെന്ന് നോക്കിയിട്ട് ആ തുണീന് ഇരുന്നൂറ് അല്ലെങ്കിൽ നൂറ്റിയമ്പത് അല്ലെങ്കിൽ നൂറ്റിയെൺപത് ഞാൻ എന്താ ആ തുണിക്കെത്ര വരുന്നു അത്രയേ ഞാൻ അതിന് ഞാൻ വില ചെയ്ത് അത് ഞാൻ മാർക്കറ്റിലേക്ക് ഇറക്കി ഞാൻ ചെയ്യത്തൊള്ളു നമ്മള് ഓരോരോ സമയത്തും ചില നേരം നമുക്ക് ലാഭം ഉണ്ടാകും നഷ്ടം ഉണ്ടാകും എല്ലാം ഉണ്ടാകും അപ്പോൾ ഷർട്ടിനും ബ്ലൗസിനും ചുടിദാറിനൊക്കെ ഓരോരോ സമയത്തും ഓരോരോ ഇതല്ലേ അപ്പോൾ ആ തുണിയിനനുസരിച്ചാണ് നമ്മളതിന് വില പറ്റത്തുള്ളൂ അപ്പോൾ അതിന് ഷർട്ട് ചുരിദാർ എന്നൊക്കെ ന്യായമായ ഒരു വിലയിലും അതിന് ന്യായമായ ഒര് വിലയിലും ന്യായമായ ഒര് അത് ഇറക്കി മേടിക്കുന്ന ആൾക്ക് തന്നെ ആ ഈ ഫാക്ടറിയിൽ നിന്ന് മേടിച്ചാൽ ആ തുണിക്ക് നന്നായി ഇരിക്കണം എന്ന ഒരു തോന്നണം പിന്നെ പിന്നെ അതിലാക്കി ഓരോരോ കാര്യങ്ങളും നോക്കി ചെയ്ത് നോക്കി ചെയ്ത് അത് നോക്കി ചെയ്ത് ഓരോരോ സാ ഓരോരോ ഓരോരോ മെറ്റീരിയലിനും ഓരോരോ വില വെച്ച് നഷ്ടം നഷ്ടം നഷ്ടം ലാഭം എന്ന് എല്ലാം ഉണ്ടാകും നഷ്ടം ലാഭം എല്ലാം ഈ പറ്റി ഈ സമയത്തുണ്ടാവുമല്ലോ അപ്പോൾ നമുക്കെന്തായി തോന്നിയോ നമുക്കെന്താ തോന്നുന്നത് അതെന്താ ചെയ്യണ്ടത് എന്നൊക്കെ നോക്കി ഈ സമയത്ത് തന്നെ ഒര് ഓരോരോ സമയത്തും ഓരോരോ വില ആയിരിക്കുമല്ലോ അപ്പം നമുക്കെന്താ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇതിനെ ഈ തുണീന് ഇത്രയും ഉള്ളൂ ആ അത് നമ്മള് ചെയ്ത് ചെയ്ത് ആ വില അനുസരിച്ച് നമ്മൾ ഈ തുണിയൊക്കെ ചെയ്തു